പോത്ത് എരുമ എന്നിവകളെ വളർത്തുമ്പോൾ അതിന് ഒരു ആറ് ആറ് മാസം പ്രായമുള്ളപ്പോൾ വാങ്ങി അതിനെ കൊണ്ടു വന്ന് അതിന് പുല്ലും തീറ്റയും എല്ലാം നൽകി അതിനെ കറവയാക്കി കറവ പശുവാക്കി അതിനുള്ള ആഹാരവും എല്ലാം കൊടുത്ത് ഗുണനിലവാരമുള്ള തീറ്റ തീറ്റപ്പുല്ലും എല്ലാം കൊടുത്ത് വളർത്തി അത് പോത്ത് അതിൽ പോത്തിനെ വളർത്തി കഴിഞ്ഞു പോത്ത് അതിന് വാങ്ങിയ ഒരു ആറോ എട്ടോ മാസം കഴിഞ്ഞു അതിന് ഒരു നാനൂറ് കിലോ വരുമ്പോൾ അതിനെ അറുക്കാൻ കൊടുക്കുകയോ അല്ലെങ്കിൽ അത് അറുത്ത് ഡീഹൈഡ്രേറ്റ് ചെയ്യാനുള്ള മെഷീനിൽ വച്ചു ഉണക്കി ബീഫ് എന്ന നിലയ്ക്ക് വിൽക്കാനും ഇപ്പോൾ ഇവിടെ ഗുണനിലവാരമുള്ള ഉണക്ക ഇറച്ചി എന്ന നിലയ്ക്ക് വിൽക്കുന്നുണ്ട് അത് സാങ്കേതികമായി നല്ല ഒരു മെഷീൻ ഡീഹൈഡ്രേഷൻ മെഷീൻ ഉണക്കാൻ ഉപയോഗിക്കുന്ന മെഷീൻ ഉപയോഗിച്ചു തന്നെ അതിന് പ്രോസസ്സ് ചെയ്തു പാക്കറ്റിലാക്കി വിൽക്കുന്നുണ്ട്